അതെയതെ ഇതാരാണ് സംസാ ആ ആ അതെയോ ആ ആ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നലെ കുറച്ച് ഉണ്ടായിരുന്നു പക്ഷേ രാവിലെ ഞാനങ്ങനെ നോ ചെക്ക് ചെയ്തിരുന്നു അപ്പം അത്ര ഓവറായിട്ട് പനി ഉണ്ടായിട്ടില്ല ഞാനതുകൊണ്ടാണ് പിന്നെ സ്കൂളിൽ വിട്ടത് ആ ആ ആ അവൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു കുറച്ചു ദിവസമായിട്ട് പനിയുണ്ടായിരുന്നു ആ അപ്പം അതുകൊണ്ടായിരിക്കാം

നമ്മളിവിടെ വാരത്താണ് കാണിച്ചത് വാരം സുൾഫിക്കർ അലിയെന്ന് പറഞ്ഞിട്ട് ഇല്ലില്ല ഞാൻ ഇല്ല ഡോക്ടർ ഞാൻ പോയിക്കോളും ആ ഇവിടെ സ്കൂളിൽനിന്നിവിടുന്ന് വീട്ടിലേക്കടുത്താണല്ലോ ആ ആ ആ ഇല്ലില്ല ഞാൻ വരാം ഞാൻ വരാം ആ ആ അതെ പക്ഷേ രാവിലെയൊന്നും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിട്ടതേ പിന്നെ എക്സാമെല്ലാം ഉണ്ടായേനല്ലോ അതുകൊണ്ടുപിന്നെ ആ ആ ആ ആ പിന്നെയങ്ങനെ ജലദോഷം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടുപിന്നെ വേറെ ഒന്നും കുഴപ്പമൊന്നും കണ്ടിട്ടില്ല അപ്പം ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഛർദ്ദിച്ചിട്ടുണ്ടാവും അല്ലേ

ആ ഇൽ

ആ ആ ഇല്ലില്ല ഞാനേതായാലും ഇപ്പം തന്നെ ഒരു ഒരു പത്തു മിനിറ്റ് അതിൻ്റെ ഇടക്ക് ഞാൻ വരാം ഇവിടെ വീട് അടുത്തുതന്നെയാണ് സ്കൂളിൻ്റെ അടുത്തുതന്നെയായതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ വരാം ഞാൻ വരാം ഓ ശരി ശരി എന്നാൽ ഞാനിനി മാമിനോട് പ്രിൻസിപ്പൽ മാമിനോട് പറയേണ്ടല്ലോ ആ ആ ശരി ശരി ശരി ആ ശരി